മലയാള ഭാഷ അറിയാവുന്നതുകൊണ്ടു തന്നെ മറ്റുള്ള ഭാഷകൾ സംസാരിക്കുന്നതിന് പഠിക്കുന്നതിനും വളരെയധികം പെട്ടന്ന് സാധിക്കുന്നു മലയാള ഭാഷയുടെ പല ഉച്ചാരണങ്ങളും വളരെ ബുദ്ധിമുട്ടുള്ളതാണ് അതും നമുക്ക് അറിയാവുന്നതിനാൽ മറ്റുള്ള ഭാഷ പെട്ടന്ന് പഠിച്ച് ഉച്ചാരണം ഇപ്പോഴത്തേന് ഒരു ഒരു നല്ല വ്യക്തി സാധിച്ചു ഒരു നല്ല വ്യക്തിയെന്ന നില ഇനത്തിൽ ഈ ഭാഷായും ഇത് സംസ്കാരവും ഒരു പരിധിവരെ നമ്മെ സഹായിച്ചു വരുന്നുണ്ട് ഒരു ഭാഷയാണ് ആ വ്യക്തിയുടെ രൂപീകരണത്തിനും ഒരു പരിധിവരെ നമ്മെ സ്വാധീനിക്കുന്നത് എല്ലാ രീതിയിലും മലയാള ഭാഷ അറിയാവുന്നത് കൊണ്ട് നാമെന്ന വ്യക്തിയെ നല്ലയൊരു ഉന്നമനത്തിന് ഉന്നമനത്തിനും വളർച്ചയ്ക്കും സഹായിക്കുന്നു മലയാള ഭാഷ യെടെ ഒരൂ പ്രാധാന്യം അത് പഠിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് രീതിയിലും ഏത് അക്ഷരങ്ങൾ പോലും നമുക്ക് മറ്റുള്ള ഭാഷയിലെ ഏത് അക്ഷരങ്ങൾ പോലും എളുപ്പമായ രീതിയിൽ തന്നെ ഉപയോഗിക്കുവാനായിട്ട് സഹാ സാധിക്കുന്നു എല്ലാം രീതിയിലും ഒരു നല്ല ഭാഷ നല്ല രീതിയിൽ മലയാളം ഉച്ചരിക്കയാണെങ്കിൽ മറ്റുള്ള ഇംഗ്ലീഷ് ഹിന്ദി പോലുള്ള ഭാഷകൾ നമുക്ക് അനായാസം കൈകാര്യം ചെയ്യുന്നതിനും അവയുടെ അക്ഷരങ്ങൾ പഠിക്കുന്നതിനും നമുക്ക് വളരെയധികം എളുപ്പമായിട്ട് വരുന്നു അങ്ങനെ ഒരു രീതിയാണ് ഉള്ളത് ഒരു വ്യക്തമായ ഒരു വ്യക്തിയെന്ന നിലയിൽ വളരുന്നതിന് പല രീതിയിലും മലയാള ഭാഷ നം നല്ല രീതിയിൽ സഹായിച്ചു വരുന്നു